ഇപ്പോൾ അധ്യാപകര് സ്കൂളിൽ പഠിപ്പിക്കുന്നത് അവർക്ക് സിലബസ് അനുസരിച്ചിട്ട് സയൻസായിക്കോട്ടെ മാത്സ് ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ ആ ബുക്കിലെന്താണോ പറയണത് അത് അതേപടിക്ക് പഠിപ്പിച്ചു പോകുന്നൊരു സ്ഥിതിയാണ് ഇന്ന് സ്കൂളുകളിൽ കാണുന്നത് പക്ഷെ അതല്ല കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് സമൂഹത്തില് അവരെങ്ങനെ പെരുമാറണം മുതിർന്നവരോടെങ്ങനെ പെരുമാറണം സ്ത്രീകളോട് കുട്ടികളോടെങ്ങനെ പെരുമാറണം ആ രീതിലുള്ള സാമൂഹികപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങള് അധ്യാപകർ കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടതുണ്ട് അതാണ് ഇന്നത്തെ സമൂഹത്തിന് ആവശ്യം